ആ ഹലോ ക്യാൻ്റീൻ്റെ പ്രൊപ്രൈറ്ററല്ലെ ക്യാൻ്റീൻ നടത്തുന്ന ആളല്ലെ ആ ഞാന് എം എ കോളേജിലെ മലയാളം ഡിപ്പാർട്മെൻ്റിലെ പ്രൊഫസറാണ് ആ എനിക്ക് അടുത്ത ദിവസം തന്നെ ഇവിടെ ഞങ്ങളുടെ ഡിപ്പാർട്മെൻ്റിൻ്റെ ഒരു സെമിനാര് നടക്കുന്നുണ്ട് അതില് ഞങ്ങളുടെ കോളേജിലെ അടുത്ത ദിവസം ഞങ്ങളുടെ ഡിപ്പാർട്മെൻ്റിൻ്റെ ഒരു സെമിനാര് നടക്കുന്നുണ്ട് അതിലേകദേശം നൂറോളം ആളുകളുണ്ടാവും അതില് പത്തു പേരോളം വിശിഷ്ടാതിഥികളുമാണ് ആ അതില് ഈ നൂറില് ഒരു തൊണ്ണൂറ് ആളുകൾക്ക് ഏകദേശം കാപ്പി അറേഞ്ചിയ്യണം അതായത് ആ അല്ല ക്യാൻ്റീനിൽ ഈ സെമിനാര് നടക്കുന്നതിനിടയ്ക്ക് മറ്റേ ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് സ്നാക്സും കാപ്പിയും കൊടുത്താല് മതി അത് ആ ആ അതായത് അതായത് എന്തൊക്കെ സാധനങ്ങളാണ് അവൈലബിളായിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങൾക്കു തരാൻ പറ്റാൻ തരപ്പെടുന്നതായ സാധനങ്ങളുടെ ലിസ്റ്റൊന്നു പറയുമോ ങാ അല്ല ഇവിടെ കാപ്പിയാണ് പ്രധാനായിട്ടും ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോള് അതില് ഏതെങ്കിലും ആളുകൾക്ക് ചായ വേണമെന്നു പറയുകയാണെങ്കിൽ ഏതാനും ചായകള് മതി പ്രധാനമായിട്ടും നമ്മള് കാപ്പിയാണുദ്ദേശിക്കുന്നത് അത് ബ്രൂ കോഫി ആ അതായത് ഓ ഏകദേശം തൊണ്ണൂറു ശതമാനവും കാപ്പിയാക്കിക്കോ ആ ആ ഒരു പത്തു ശതമാനം മാത്രം ചായ ആക്കി പത്തു ശതമാനം ചായ ആക്കിയാല് മതി മ് ഈ ആ മതി മതി മതി അതില് ഈ ബനാന പഫ്സ് ലഭ്യമാണോ ആ അപ്പോള് ഈ പറഞ്ഞപോലെ ബനാന പഫ്സും മറ്റേ കാപ്പിയും ഒരു പത്ത് തൊണ്ണൂറ് കാപ്പിയും പത്ത് പേർക്കു ചായയുയായിട്ടു കരുതിയാല് മതി അതെ ആ ഇത് മാർച്ച് ഒരു ഇരുപത്തിയഞ്ച്

ആ അഡ്വാൻസ് ഇല്ലേ അപ്പോള് ആ അത് തീർന്നില്ല അഡ്വാൻസ് തരാവുന്നതേ ഉള്ളു പിന്നെ ഒരു പത്ത് പേർക്ക് മട്ടൺ ബിരിയാണി ലഭ്യമാുമോ വിശിഷ്ടാതിഥികൾക്ക് ഉച്ചയ്ക്കു കൊടുക്കാന് വേണ്ടിയിട്ടാണ്

മ്മ് അത് ആ മ് ആ അതായത് ഇതുക്കൂട്ട് സ്നാക്സും ചായയും കാപ്പിയും അവിടെ എത്തിക്കണം ഹാളില് കോൺഫറൻസ് ഹാളില് എത്തിക്കണം ആ മറ്റു പത്തുപേർക്കുള്ള മട്ടൺ ബിരിയാണി അത് ഞങ്ങള് അല്ല ഞങ്ങള് അത് അവരെയുംകൊണ്ട് ക്യാന്റീനിലേക്കു വന്നോളാം ക്യാന്റീനിലേ മുറി അറേഞ്ചിയ്താല് മതി ആ ഡേറ്റ് മാർച്ച് ഇരുപത്തി അഞ്ച് ആ ആ അപ്പോള് ഇതില് അഡ്വാൻസായിട്ട് ഞാന് എത്ര തരണം ആ ഗ്രൂപ്പാക്കിത്തന്നെ വേണം അതു നിർബന്ധാണ് ആ അഡ്വാൻസാണോ ആ ടോട്ടല് ആ ആ ആ ആ ആ ആ ആ സമ്മതമാണ് സമ്മതമാണ് സംഗതി അപ്പോള് അറേഞ്ചിയ്തോ അതിനു വ്യത്യാസങ്ങളൊന്നും വരുത്തരുത് ആ ചൂടായിട്ടും ഫ്രഷായിട്ടുള്ള സാധനവും ആയിരിക്കണം തരുന്നത് തരുന്ന കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരിക്കുന്നതല്ല അഡ്വാൻസ് അടുത്ത ദിവസം ആ ഓക്കെ ഓക്കെ ഒക്കെ ഓക്കെ